ഞാൻ കൊച്ചിലെ ഒക്കെ എനിക്ക് നീന്താനൊക്കെ പേടിയായിരുന്നു വെള്ളത്തിൽ മുങ്ങാൻ പോലും പണ്ടൊക്കെ ചരിവം എടുത്ത് വെള്ളം നിറച്ച് തല മുക്കുകയായിരുന്നു അന്നൊക്കെ എൻ്റെ നീന്തൽ എന്നൊക്കെ പറയാന്നുവെച്ചാൽ അതാണ് എൻ്റെ നീന്തൽ അത്രെ അത്രമാത്രമേ എനിക്ക് അന്ന് വിവരമുണ്ടായിരുന്നുള്ളൂ ഇപ്പോള് പ്രായം കൂടി കൂടി വന്നപ്പോള് ഞാൻ പിന്നെ വലിയൊരു ചരുവം എടുത്ത് അതിൻ്റെ വെള്ളം പിടിച്ച് അതിൻ്റെ അകത്തിരുന്ന് അതും അതിൻ്റെ അടുത്ത പടിയാണെന്നും പറയാം ഒരു എനിക്കൊരു നീന്തൽ എന്ന് ഞാൻ വിശേഷിച്ചു ഞാൻ തന്നെ പിന്നെ ഞാൻ ഓരോ വിനോദസഞ്ചാരമായ ഹാപ്പി ലാൻഡ് വണ്ടർലാ ആ ഒക്കെ അവിടെ ഒക്കെ പോയതിന് ശേഷം ആണ് ഞാൻ ഇത്രയും കാലം അനുഭവിച്ചതും സന്തോഷിച്ചതുമായ ഒന്നും അല്ല നീന്തൽ അതുക്കും വലുതാണ് നീന്തൽ എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഒരു ദിവസം ഹാപ്പി ലാൻഡ് എന്ന വിനോദ സഞ്ചാര സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്കന്ന് നീന്താൻ തന്നെ പേടിയായിരുന്നു കാരണം അത് കാണുമ്പോൾ തന്നെ മനസിലാകും അത് എന്നേക്കാൾ വലുതും ആഴമുള്ളതും ആണെന്ന് അന്ന് ഞാൻ തീരെ ചെറുതായതു കൊണ്ടായിരിക്കാം എനിക്കന്നന്നതു തോന്നിയത് അങ്ങനെ എൻ്റെ പിഴവ് കാരണം കുഞ്ഞമ്മ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും എന്നെ കളിയാക്കുകയും ചെയ്യുന്നത് എനിക്ക് നീന്താൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ പ്രായത്തിൽ പല പിള്ളേരും നീന്തുന്നു എന്നും ഞാൻ അതിൻ്റെ ആവേശത്തിൽ ഞാൻ വെള്ളത്തിൽ എടുത്ത് കുതിക്കുകയും അത് എൻ്റെ കുഞ്ഞമ്മയുടെ മുഖത്ത് അടിക്കുകയും അങ്ങനെ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു അന്നുമുതല് എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നീന്തൽ പഠിച്ചാലേ ഇതുപോലത്തെ തെറ്റുകൾ എനിക്ക് തടയാൻ സാധിക്കൂ എന്നെനിക്ക് മനസ്സിലായത് അങ്ങനെ ഒടുവിൽ ഞാൻ ഓരോ വയസ്സ് കൂടുംതോറും ഞാൻ ഒരോ രീതി അന്നെനിക്ക് പരിശ്രമിക്കാൻ എനിക്കിവിടെ കുളങ്ങളോ പുഴകളോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നുമില്ല എൻ്റെ ഒരു ഉണ്ടായിരുന്നു എങ്കിലും അവിടെ പൈസകൾ കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഓരോ പോവുകയും ഇതേ പോലെ പിന്നെ പോയി നീന്തുകയും ഓരോ പ്രാവശ്യവും പോകുമ്പോഴും ഞാൻ എൻ്റെ കഴിവുകൾ ഞാൻ ഒരുപാട് പഠിക്കുകയും നീന്താൻ വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് നേരം മുങ്ങിക്കിടക്കാനുമൊക്കെ ഞാൻ പഠിച്ചു അങ്ങനെ ഞാൻ പ്രായപൂർത്തിയായപ്പോള് എനിക്ക് ഇപ്പോള് നല്ല ധൈര്യവും ഭാരിച്ച സമ്പത്തുമുണ്ട് എങ്ങനെ നീന്തണം എന്നെനിക്ക് ഒക്കെ അറിയാം എങ്ങനെയാണ് അത് കാണുമ്പോൾ ആണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കിയത് ഇത്രയും വലിയ ആഴമുള്ളു ഇവിടെ എനിക്ക് ഇങ്ങനെ നീന്താം അങ്ങനെ ഒരുപാട് ഡൈവ് ചെയ്യുകയും ഇപ്പോൾ ഞാൻ കുളങ്ങളും പുഴകളുമൊക്കെ നീന്താനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കടലിലൊക്കെ ഞാൻ പോകും അവിടെ ഒരുപാട് ഉള്ളിലേക്ക് പോയില്ലെങ്കിലും ഞാൻ ഒരുപാട് നീന്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്